ആണുങ്ങള് പട്ടണങ്ങളിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട് യുവ തലമുറ അവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാൽ ഇതൊന്നും ഇല്ല കാരണം അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് അവര് താമസ സ്ഥലം തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവരവിടെ ജോലിക്കു പോകുന്ന സമയത്ത് അവര് അവിടെ സ്ഥിരമായി താമസിക്കുന്നു അപ്പം ജീവിത പങ്കാളിയെ കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ താമസിക്കുന്നത് കൊണ്ട് മാത്രല്ല അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ പഠനം അവരുടെ മികവ് ജോലി ഇതൊക്കെയുണ്ടെങ്കിൽ ഒരു ജോലി ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുല്ല ആളുകൾ പട്ടണത്തില് ജീവിക്കുമ്പോൾ പട്ടണത്തില് വേറെയും ഒരുപാട് ആളുകളുണ്ടാവുല്ലോ അപ്പം അവിടെയും പങ്കാളികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പം പട്ടണത്തിൽ ജീവിക്കുന്നത് മാത്രം എന്തായാലൊരു സറണ്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കും തെരഞ്ഞെടുക്കാൻ പറ്റില്ല